ഇപ്പോഴത്തെ ആളുകൾക്ക് എൻ്റെ കഴിവിനെക്കുറിച്ച് കുഴപ്പമില്ലാത്ത അഭിപ്രായമാണ് അവർക്കുള്ളത് ഞാൻ കൈകൊണ്ട് ഒത്തിരി നിർമ്മിച്ചെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തയ്യൽ മിഷീനിൽ വെച്ചു തയ്ച്ചാണ് കൊടുക്കുന്നത് ഞാൻ എനിക്കിത്രയും ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ച് അവർ നല്ല അയിപ്രായങ്ങളാണ് സാധാരണ പറയാറ് ഉപോക്താക്കളിൽ നിന്നും എപ്പോഴും എനിക്ക് നല്ല അഭിപ്രായങ്ങൾ തന്നെ ലഭിക്കാറുണ്ട് കാരണം ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി ഓരോന്നും അത് എങ്ങനെയാണെന്നു നോക്കി അതനുസരിച്ച് സെലക്ട് ചെയ്ത് അത് നോക്കിയാണ് ഞാൻ തയ്ച്ചു കൊടുക്കാറ് അതുകൊണ്ടുതന്നെ എനിക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട മോഡലുകൾ തയ്ച്ചു കൊടുക്കാൻ പറ്റാറുണ്ട് അതുകൊണ്ടുതന്നെ അവർക്ക് ഞാൻ തയ്ക്കുന്നതിൽ നല്ല അഭിപ്രായമാണുള്ളത് അവർ സന്തോഷത്തോടെ അത് മേടിക്കുകയും അതിന് നല്ല മറുപടി പറയുകയും ചെയ്യാറുണ്ട് പിന്നെ കൂടുതലായിട്ടും ഞാൻ ബ്ലൗസുകൾ ഷാളും ചുരിദാറുകൾ അങ്ങനെയുള്ള കുട്ടി ഉടുപ്പുകളൊക്കെയാണ് തയ്ക്കുന്നത് അതാണ് കൂടുതലായിട്ടും ഞാൻ ഇപ്പോൾ തയ്ക്കാൻ പഠിച്ചിരിക്കുന്നത് വലുതായിട്ടൊന്നും തയ്ക്കാൻ പഠിച്ചിട്ടില്ല ചെറുതായിട്ടാണ് തയ്ക്കാൻ പഠിച്ചിട്ടുള്ളൂ എങ്കിൽക്കൂടി തന്നെയും എനിക്ക് ചുരിദാറുകളും കുട്ടികളുടെ ഉടുപ്പ് പല രീതിയിൽ പല ആകൃതിയിലുള്ള ഉടുപ്പുകളും തയ്ക്കാൻ പറ്റാറുണ്ട് അതുകൊണ്ടുതന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് എനിക്ക് ഞാൻ ഇങ്ങനെ അത് തയ്ച്ചു തരുമോയെന്നും പറഞ്ഞ് ആ അവരോരോ മോഡല് കാണിക്കുമ്പോൾ ഞാൻ അതിനെ പരമാവധി ശ്രമിച്ച് അവർക്ക് തയച്ചു കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അതുതന്നെ അതുകൊണ്ടുതന്നെ എനിക്ക് അത് ഒരു ചെറിയൊരു വരുമാന മാർഗ്ഗവും കൂടിയാണ് അവർക്ക് അതിൽ സന്തോഷവുമാണ് പിന്നെ ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ കൂട്ടുകാരികളെയും ഈ തയ്യലിന് ആവിശ്യമായിട്ട് വരുമ്പോൾ അവരുടെ അഭിപ്രായങ്ങളും ചോദിക്കാൻ പറ്റിയ ഒത്തിരി കൂട്ടുകാരികളെയൊക്കെ കിട്ടാറുണ്ട് അവരവരുടെ അഭിപ്രായങ്ങൾ പറയാനും അവർക്ക് എങ്ങനെയുണ്ട് ഈ തയ്യലിൻ്റെ കാര്യങ്ങൾ എന്നു മനസ്സിലാക്കിത്തരാനും പിന്നെ തയ്യലിനെക്കുറിച്ച് പറഞ്ഞുതരാനും എനിക്ക് ഒത്തിരി കൂട്ടുകാർ ഇതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കാറുണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ വളരെ സന്തോഷവതിയാണ് എൻ്റെ എനിക്ക് ഒരു വരുമാനമാർഗ്ഗവുമാണ് ഇത് അതുകൊണ്ടുതന്നെ എൻ്റെ കുട്ടികാരികൾ എന്നോട് പറയാറുണ്ട് നിനക്കിങ്ങനെ തയ്യൽ പഠിക്കാൻ പറ്റിയതും തയ്ക്കുന്നതും കൊണ്ട് നിനക്ക് നല്ല കാര്യങ്ങൾ നല്ല ഒരു കഴിവുണ്ട് ആ കഴിവു നീ നല്ലപോലെ വിനിയോഗിക്കണം ഇനി കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുകയും നല്ലതുപോലെ തയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യണം നമുക്ക് ഇന്നത്തെ ഇന്നത്തെക്കാലത്ത് ഓൺലൈനിലൂടെ ഒത്തിരി ഒത്തിരി മോഡലുകൾ തയ്ക്കാനും തയ്യൽ ക്ലാസ്സുകളും കിട്ടാറുണ്ട് അതുനോക്കി ഞാൻ കുറേയിതിലും പഠിക്കാമെന്നു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ തയ്യൽ ക്ലാസ്സുകൾ ഞാൻ നോക്കി പഠിച്ചത് അതുപോലെ തയ്ക്കാൻ ഞാൻ പലതും ശ്രമിച്ചതാണ് ഞാൻ പലതും തയ്ച്ചു വരുന്നത് അങ്ങനെ തന്നെയാണ് എൻ്റെ കുട്ടുകാരികൾക്കും എൻ്റെ ഫ്രണ്ട്സിനും അടുത്തുള്ളവർക്കൊക്കെ ഞാൻ തയ്ച്ചു കൊടുക്കുന്നത് മുക്കുന്നത് അവരെ എന്തു മോഡല് പറയുന്നുവോ ആ മോഡല് തന്നെ ഞാൻ വെട്ടി തയ്ക്കാൻ ശ്രമിക്കാറുണ്ട് അതിൽ ഞാൻ വിജയിക്കാറും ഉണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് തയ്ച്ചു മേടിക്കുന്ന ഓരോരുത്തരും എൻ്റെ തയ്യലിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് പറയാറ് അവർ ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴും നിനക്കത് ചെയ്യാൻ പറ്റും നീ അതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക അതുകൊണ്ട് നിനക്ക് ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ച് എന്നെക്കൊണ്ട് തയ്പ്പിക്കാറുണ്ട് ആ അങ്ങനെ കൊടുക്കുന്ന കൊണ്ടുതന്നെ അവർക്ക് ഞാനുമായിട്ടുള്ള ആത്മബന്ധവും നല്ലതാണ് അവരാണ് എനിക്ക് എത്രയും ശക്തിയും ബ ലവും നൽകുന്നത് അപ്പോൾ ഞാൻ തയ്ക്കാൻ പറ്റില്ല എന്നു പറഞ്ഞാൽക്കൂടി തന്നെ അവരുടെ പ്രോത്സാഹനം അവരെ വാക്കുകൾ അവരിൽ നിന്നും വരും അവരെന്നോട് പറയും നിനക്ക് തയ്ക്കാൻ പറ്റും നീയതൊന്ന് ശ്രമിച്ചു നോക്ക് നി ഞങ്ങളേക്കാൾ കൂടുതൽ നല്ലത് തയ്ക്കുന്നതല്ലേ അതുകൊണ്ട് നിനക്ക് പറ്റുമെന്ന് അവരുടെ നല്ല നല്ല അയിപ്രായങ്ങൾ വരികയും അതിൻ്റെ ഫലമായിട്ട് ഞാൻ തയ്ച്ചു നോക്കി ഞാനതിൽ വിജയിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരിൽ നിന്നും നല്ല അഭിപ്രായവും കിട്ടുന്നതുകൊണ്ട് ഈ തയ്യൽ നല്ല രീതിയിൽ മുന്നോട്ടു കൊണ്ടുപോവാൻ ഞാൻ ആഗ്രഹിക്കാറും ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഒത്തിരി കൂട്ടുകാരികളേയും നല്ല നല്ല വസ്ത്രങ്ങൾ തയ്ക്കാനുള്ള മനസ്ഥിതിയും കിട്ടിയിട്ടുണ്ട്